നിയമപരമായ രേഖകളുണ്ടാക്കുന്നതിൽ എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ കുറേ ഒക്കെ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഗവണ്മെൻ്റ് ജോലിക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട നിയമപരമായ രേഖകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നില്ല അവർക്ക് കുറേ ഒക്കെ കൈക്കൂലി ആശ്രയിച്ചിട്ടാണ് ഈ ഈ രേഖകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവരിൽ നിന്ന് നമുക്ക് മോചിക്കപ്പെടണമെങ്കിൽ ഇവിട നല്ലൊരു സിസ്റ്റം റെഡിയാവണം എന്നാലാണ് ഈ ഗവണ്മെൻ്റ് റൂൾസ് നന്നായി നടപ്പിലാക്കിയാലാണ് നമ്മളുടെ ഈ രേഖകൾ നമുക്ക് അവകാശപ്പെടുന്ന നിയമ രേഖകളും നമുക്ക് കൃത്യമായി ലഭിക്കത്തുള്ളൂ ഇവ ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കുക ആ പഠിച്ചിട്ട് അതിനെ നമ്മൾക്ക് എഗസ്റ്റായിട്ട് അവർ നിൽക്കാണെങ്കിൽ അതിനെ കേസ് കൊടുത്താൽ ഹൈ കോടതിയിൽ കേസ് കൊടുത്ത് നമ്മളതിന് മുന്നോട്ടത് നീങ്ങാം അപ്പം നമുക്ക് ലഭിക്കേണ്ട രേഖകൾ കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യും നമുക്ക് ഏറ്റവും അധികം പ്രയാസമുള്ളത് ഈ രേഖകൾ കിട്ടാനാണ് ഈ രേഖകൾ ഒരു രേഖ കിട്ടാൻ തന്നെ കണ്ടമാനം ഫോംസും കണ്ടമാനം ഫയൽസും ഫോംസും സീനിയേഴ്സസും ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രം അതിലും കറക്ഷൻസും കണ്ടമാനം ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ ചെയ്ത് ശേഷമാണ് നമുക്ക് രേഖ റൂൾസൊക്കെ റെഡിയാണ് പക്ഷേ ഈ ഈ ടൈം എടുക്കുന്നതാണ് ഏറ്റവും വളരെ വിനിയോജ്യമായി എടുക്കുന്നത് കണ്ടമാനം ഗവണ്മെൻറ്റ് സ്റ്റാഫ്സ് കണ്ടമാനം ഗവണ്മെൻ്റ് സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് സ്പീഡ് ചെയ്യാനുള്ള മാർഗ്ഗം ഗവണ്മെൻ്റ് നോക്കണം അതിനനുസരിച്ചുള്ള ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കേണ്ടത് കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒരിക്കലും ഗവൺമെൻറ്റ് അവരങ്ങനെ പിടിച്ചാൽ എന്നെന്നേക്കുമായി ജോലി കളയുകയും ചെയ്യണം ജോലിയിൽ നിന്ന് ജയിലിലേക്ക് പുറത്തേക്ക് കൊണ്ട് വരുകയും ചെയ്യണം അതാണ് എനിക്ക് ആകെ ഉള്ള ഈ നിയമപരമായ രേഖകളിൽ ചെയ്യുന്നതിൽ എനിക്ക് പറയാനുള്ള അനുഭവം